ഹലോ ആ പറഞ്ഞോളൂ അതെ ആരായിരുന്നു വിളിക്കുന്നത് ആ ഗേൾ ആണോ ബോയ് ആണോ ഗേൾ ഗേൾ ആണ് അല്ലേ ഓക്കെ നമുക്ക് എൽ കെ ജിയിൽ വൺ ഇയറിലേക്ക് ഫീ വരുന്നത് മറ്റേ തേർട്ടി ഫൈവ് കെ ആണ് സെക്കൻ ആ സെക്കന്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്നത് സെവൻറ്റി ഫൈവ് കെ ആണ് പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ നമ്മുടെ ഇത് വരുന്നുണ്ട് അതിൽ അത് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഫീസും കാര്യങ്ങളാണ് പിന്നെ യൂണിഫോം ബുക്ക്സ് അതിൻ്റെ ബുക്ക്സിൻ്റെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് യൂണിഫോം സെപ്പറേറ്റ് ആണ് ആ പിന്നെ ബസ് എങ്ങനെയാണ് കേട്ടില്ല ഇല്ലില്ല നമ്മൾ ഇവിടുന്ന് തന്നെ തയ്ച്ച് തരുന്നതാണ് അത് മൊത്തം അതിൻ്റെ ഫണ്ട് ഇതാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഫുൾ സെറ്റ് ആക്കി തരുന്നതാണ് എംബ്ലവും കാര്യങ്ങളും എല്ലാം വെച്ച് സെറ്റ് ആക്കുന്നതാണ് പിന്നെ ഐഡിൻറ്റിറ്റി കാർഡിന് സെപ്പറേറ്റ് ഇത് ഉണ്ട് റേറ്റ് വരുന്നുണ്ട് ആ ആ ഫീസ് വരുന്നുണ്ട് ആ അങ്ങ ആ അങ്ങനെ അങ്ങനെ അങ്ങനെ ആണ് അങ്ങനെ ആണ്

ആ ബസ് ഉണ്ട് ബസ് ഉണ്ട് സ്കൂൾ ബസ് ഉണ്ട് സ്കൂൾ ബസ് ഉണ്ട് സ്കൂൾ ബസിന് സെപ്പറേറ്റ് ആ അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം അത് നിങ്ങൾ ഇത് ആക്കുന്നതിന് അനുസരിച്ച് രണ്ട് പേരെയും ഇത് ആക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപ വെച്ചിട്ട് ആ മന്ത്ലി ഇവിടെ ഒമ്പത് മണി മുതൽ ഒമ്പത് മണി മുതൽ എൽ കെ ജി ഒക്കെ ആണെങ്കിൽ ഒമ്പത് മണി മുതൽ മൂന്ന് മൂന്നര വരേയുള്ളൂ ആ എൽ കെ ജിയും രണ്ടാം ക്ലാസും മൂന്നര വരെ തന്നേ ഉള്ളൂ

ആ എത്താം എത്താം ആ നിങ്ങൾ ഇവിടെ ഒരു ആ മറ്റേ ഇത് മതി ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി പിന്നെ ഒരു ഫോട്ടോയും പിന്നെ ഫോട്ടോയും ആ പിന്നെ ആ ഓക്കെ ഓക്കെ നാളെ വന്നാൽ മതി ആ ഓക്കെ ഓക്കെ